ഞാന് ഫ്ലിപ്ക്കാർട്ടിൽ നിന്ന് ഒരു ഹെഡ്ഫോണ് വാങ്ങി ഹെഡ്ഫോണ് വാങ്ങിയിരുന്നു അത് ചിലപ്പോൾ യൂസെയ്യാനൊക്കെ നല്ലതാണ് പക്ഷേങ്കില് ചില സമയത്ത് കാതില് ചെവിട്ടില് വെക്കുമ്പോൾ അത് ഒന്ന് താഴേക്ക് പോകും ഒന്നുമാത്രേ ഉണ്ടാവുകയുള്ളു അങ്ങനെയൊക്കെയാണ് അതിന്റെ അത് പിന്നെ ചിലപ്പം എന്തെങ്കിലും പറഞ്ഞാല് നമ്മള് സംസാരിച്ചോണ്ടിരിക്കുന്ന അത് കേൾക്കില്ല ആരെങ്കിലും വിളിച്ചാല് എന്തേലും പറയുമ്പോൾ തീരെ കേൾക്കില്ല ഒന്ന് അപ്പാട് താഴേക്ക് പോകും ഒന്നുമാത്രേ ഉണ്ടാവുളളു കാതില് അതുകൊണ്ടാണ് അതാണ് നെഗറ്റിവ്